ഇന്ന് ഇന്ത്യയിൽ നേരിടുന്ന ഒരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ജോലിയില്ലായ്മയാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഒരു വർഷം പഠിച്ചിറങ്ങുന്ന എൻജിനിയർമാർ ഡോക്ടർമാർ ഡിഗ്രിക്കാർ അതുപോലെ പോളി ടെക്നിക്ക് ഐ ടി ഐ അങ്ങനെ ഒരുപാട് പേർ ഒരു വർഷം പഠിച്ചിറങ്ങുന്നത് പക്ഷെ ഇവർക്കൊന്നും കൊടുക്കാൻ ഉള്ള ഒരു ജോലിസാധ്യത നമ്മുടെ സർക്കാർ കാണുന്നില്ല ഏറ്റവും രൂക്ഷമായി അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ജോലി ഇല്ലായ്മയാണ് പല വിദ്യാർത്ഥി അല്ലെങ്കിൽ പല യുവാക്കളും മറ്റ് രാജ്യങ്ങളിലോട്ട് ജോലിക്കായി പോകേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത് നമ്മൾ എന്താണോ പഠിച്ചത് പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയൊന്നും ആർക്കും ഇവിടെ കിട്ടുന്നില്ല ഏതെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യേണ്ട അവസ്ഥയിലോട്ട് എത്തി ചേരുകയാണ് ഇപ്പോളുള്ള ആളുകളൊക്കെ അല്ലാണ്ട് നമ്മളിഷ്ടപ്പെട്ട പ്രൊഫഷൻ പഠിച്ച് ജോലി ചെയ്യുന്നവർ വളരെ ചുരുക്കം പേർ മാത്രമാണ് ബാക്കി പേരും ബഹു ഭൂരിപക്ഷം ആളുകളും കിട്ടുന്ന ജോലി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക അതുമായി പൊരുത്തപ്പെട്ട് പോവുകയാണ് പിന്നെ കുറേ ആളുകൾ ദുബായ് അമേരിക്ക ലണ്ടൻ ഫ്രാൻസ് അങ്ങനുള്ള രാജ്യങ്ങളിലോട്ട് മാറുക അവിടെ തന്നെ ജോലി ചെയ്യുക അവിടെ തന്നെ സെറ്റിലാകാൻ നോക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെയെന്ന് പറയുന്നത് നല്ല ഒരു ഫെസിലിറ്റീസ് നമ്മൾ സർക്കാർ പിള്ളേർക്ക് ജനങ്ങ പുതിയ തലമുറക്ക് വേണ്ടി കൊടുക്കുന്നില്ല അഡ്വാൻസായിട്ടുള്ള ടെക്നോളജികളൊന്നും നമ്മുടെ നാട്ടിലിപ്പോഴും ലഭ്യമല്ല അപ്പോൾ വൈകുന്നേരങ്ങളിലൊന്ന് ഒരു ഫുഡ് സ്ട്രീറ്റിൽ പോയിരിക്കാനോ അല്ലെങ്കിൽ സ്ട്രീറ്റിലൂടെ നടക്കാനോ അങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസൊന്നും നമ്മുടെ നാട്ടിലില്ല അത്രയും ഡവലപ്ഡ് ആയിട്ടില്ല നമ്മുടെ നാട് ഇപ്പം മറ്റ് രാജ്യത്തെ വെച്ചിട്ടിപ്പോൾ കുറച്ച് കൂടെ നല്ല രീതിയിൽ ഡവലപ്പാവണം ഒരു വൈകുന്നേരങ്ങളിലൊരു റിലാക്സാകാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലിക്ക് പോയിരിക്കാവുന്ന രീതിലൊന്നും നമ്മൾടെ എല്ലാ പട്ടണങ്ങളിലും അതിനുള്ള ഫെസിലിറ്റീസൊന്നും ആയിട്ടില്ല പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് നല്ല ഒരു അഡ്വാൻസ് ടെക്ക്നോളജിയുള്ള ഹോസ്പിറ്റലുകളൊക്കെ വളരെ ചുരുക്കമാണ് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും അത് നല്ല വിലയും ആയിരിക്കും അപ്പോൾ അവിടെ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മിനിമം ഒരു മൂന്ന് നാല് ലക്ഷം രൂപയെങ്കിലുമൊക്കെ വേണ്ടി വരും സാധാരണക്കാർക്ക് അതൊക്കെ നല്ല രീതിയിൽ ബാധിക്കും